ഹലോ അതേ ആരാണ് ആ പേരെന്താ ആ എന്താ ആവശ്യം എന്താ അതെയോ ആഹാ മോളേ ഞാൻ ഇപ്പോൾ കോളേജിലില്ല ഞാൻ എനി ഒരു ആഴ്ചത്തേക്ക് ലീവ് ആണ് ഞാൻ വയനാട്ടിലാണ് ഉള്ളത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വരാൻ എന്തായാലും ഒരു രണ്ടു മൂന്നു ദിവസം കൂടി എടുക്കും അതെയല്ലേ എനിക്ക് ആ കംപ്ലയിൻ്റ് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പം കംപ്ലയിൻ്റ് കിട്ടിയാലും അതിന് ചെയ്യാൻ മാത്രമുള്ള ഫണ്ട് നിങ്ങളെ യൂണിയൻ ഫണ്ട് ഇല്ല അപ്പം നിങ്ങൾ തന്നെ കുട്ടികളെ അടുത്തു നിന്ന് പിരിച്ചിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഫാന് നോക്കാം മോളേ ഇപ്പോൾ അയിമ്പത് രൂപ വച്ച് എടുത്താൽ ഒരു ഫാൻ വാങ്ങിക്കാൻ കഴിയില്ലല്ലോ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിൽ തന്നെ വയ്ക്കാൻ ഇപ്പോൾ ഫാനിൻ്റെ പൈസ എല്ലാം മോൾക്ക് അറിയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റിൻ്റെ ഒരു മീറ്റിംഗ് എല്ലാം കൂടിയിട്ട് ഒരു തീരുമാനം എടുക്ക് ആ ടീച്ചേഴ്സിനോട് ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കാം കാരണം ഇപ്പോൾ ഫണ്ട് ഇപ്പോൾ പൈസേൻ്റെ കാര്യത്തിൽ കുറച്ച് ടൈറ്റ് ആണ് നിങ്ങൾ കോളേജിൻ്റെ തന്നെ കുറെ പരിപാടി കാര്യങ്ങളെല്ലാം ആയിട്ടുതന്നെ പൈസ ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും ടീച്ചർസിനോട് എല്ലാം ഒന്ന് ഒരു വിളിച്ച് ചോദിച്ചു നോക്കാം എന്തായാലും സ്റ്റാഫ് റൂമിലെ ഫാൻ ഇപ്പോൾ എന്താ ഞാൻ എന്താ പറയുക മോളേ നിങ്ങൾ ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങളെ ഇടയിൽ തന്നെ പൈസ പിരിച്ചിട്ട് ഒന്ന് ശ്രമിച്ചു നോക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നല്ല ഫാന് നോക്കാം ചെറിയ പൈസയ്ക്ക് അത് സെക്കൻ്റ് ഹാൻ്റ് ഫാൻ ഒന്നു അല്ല മോളേ അത് ആദ്യമേ ഉള്ള നല്ല ഫാൻ ആണ് പിന്നെ ഇങ്ങന ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ കാലപ്പഴക്കം വരുമ്പോൾ എന്തിനാ പ്രശ്നം വരാത്തത് എന്തായാലും ഞാൻ നിങ്ങളെ ഒരു ഇത് പ്രമാണിച്ച് ഞാൻ ചോദിക്കാം എന്താ ടീച്ചർനോടെല്ലാം ഒന്ന് സംസാരിക്കാം ഇതിനെ പറ്റിയിട്ട് എന്തായാലും ഞാൻ ഒരു പൈസ നിങ്ങൾ കളക്ട് ചെയ്യുമെങ്കിൽ ബാക്കി പൈസ ടീച്ചേർസിൻ്റെയും എൻ്റെയും ഇതിൽ തന്നെ തരാൻ പറ്റുമോയെന്ന് നോക്കട്ടെ ആ വേറെ എന്തെങ്കിലും പ്രതേകിച്ച് പറയാൻ ഉണ്ടോ

ആ പെട്ടെന്ന് തന്നെ ഞാൻ നോക്കാം ഞാൻ എന്തായാലും ഒരു രണ്ടു മൂന്നു ദിവസം കഴിയും വരാൻ വന്നതിനു ശേഷം നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം എടുക്കാം പോരേ